ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നൊര് പ്ലേറ്റ് ഓർഡർ ചെയ്തിരുന്നു പക്ഷേ അതെനിക്ക് പോസ്റ്റ് വഴിക്ക് കിട്ടിയപ്പള് അതിന്റെ പാക്കേജോക്കെ വളരേ നശിച്ച രീതിയിൽ പറ്റ കേട് വന്ന രീതിയിലാണ് കിട്ടിയത് പേക്കേജ് പൊട്ടിച്ച് ഞാൻ നോക്കിയപ്പം അതിന്റെ പ്ലേയ്റ്റിന്റെ പിന്നെ ചിറ്റ് ഭാഗം പൊടിഞ്ഞ് പോയൊരു രൂപത്തിലാണെനിക്ക് കിട്ടിയത് പൊട്ടിപ്പിളർന്നിങ്ങനെ നിൽക്കുന്നൊര് വിണ്ട രൂപത്തിലാണ് കിട്ടിയത് അതിൽ കൂടെ ഞാൻ വളരേ ആഗ്രഹിച്ച് വാങ്ങിയൊര് സാധനമായിരുന്നു ഇപ്പം ഇത് ഈ പ്ലേറ്റ് എനിക്കിഷ്ടമായിരുന്നു അത് അത് കൊണ്ടാണത് ഓർഡർ ചെയ്തത് പക്ഷേ ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിൽ നിങ്ങളയച്ചത് എനിക്കറിയില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഈ സാധനം മാറ്റിത്തരണം നിങ്ങള് അല്ലെങ്കിൽ ഇതിന്റെ പൈസ തിരിച്ചു തരണം എനിക്കി സാധനം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനിത് ഓർഡ്റ് ചെയ്തത് കഴിയുമെങ്കിൽ എനിക്കിങ്ങനത്തെ ഇതേ സാധനങ്ങള് നല്ലൊര് പാക്കേജിങ്ങിലാക്കി തരിക അയച്ച് തരിക അല്ലെങ്കിലെനിക്ക് പിന്നെ ഇതിന്റെ പൈസ തിരിച്ച് കിട്ടിയെ മതിയാവു